ഞങ്ങളുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉച്ചഭക്ഷണത്തിന് ഞങ്ങൾ ചോറും കറികളും തന്നെയാണ് പാചകം ചെയ്യാറുള്ളത് അതായത് നമ്മൾ ഒരു നേരേ എന്റെ വീട്ടിൽ ഒരു നേരേ ചോറ് ഉണ്ണാറുള്ളൂ ഉച്ചയ്ക്ക് അത് ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെയാണ് ഉച്ചയ്ക്ക് തന്നെ കഴിക്കാന് ശ്രമിക്കാറുണ്ട് അപ്പം ഞങ്ങൾ ചോറിന്റെ കൂടെ തന്നെ എല്ലാ പോഷകങ്ങളും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് ഞാന് ചെയ്യാറുള്ളത് അതായത് ചോറ് എന്തെങ്കിലു ഒഴിച്ച് കറി പച്ചക്കറികള് പയറ് വര്ഗ്ഗങ്ങള് പ്രോട്ടീന് കിട്ടാനായിട്ട് മുട്ട പോലുള്ളവ ഞാന് ദിവസവും എന്റെ ഉച്ചഭക്ഷണത്തിൽ ഉള്പ്പെടുത്താറുണ്ട് അതായത് ഒരു ദിവസം പയറാണെങ്കില് പിറ്റേ ദിവസം കടല അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികൾ കൊണ്ടുള്ള കൂട്ട് സാമ്പാർ തോരന് അങ്ങനെ എന്തെങ്കിലും മാറി മാറി ഞാന് ചെയ്യാന് ശ്രമിക്കാറുണ്ട് അത് മാരി തന്നെ ഇലക്കറികളും മീന് ഇറച്ചി മുതലായവയും ഞങ്ങൾ ഉച്ചഭക്ഷണത്തിലുള്പ്പെടുത്താറുണ്ട് അത്താഴത്തിനു സാധാരണ ഞങ്ങൾ ചോറ് കഴിക്കുന്നത് കുറവാണ് കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ പ്രായമായ പ്രായമായുള്ളത് കൊണ്ടു തന്നെ അവര്ക്ക് ഷുഗറ് പോലുള്ള അസുഖമുള്ളത് കൊണ്ട് ഞങ്ങൾ രാത്രി ചോറിന്റെ അളവ് കുറച്ചിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ളെ ഭക്ഷണങ്ങള് ഞങ്ങള് രാത്രി ഉള്പ്പെടുത്താറുണ്ട് അതായത് ചപ്പാത്തി അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള ദോശ അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള കുറുക്ക് അങ്ങിനെയുള്ള ഭക്ഷണങ്ങള് അല്ലെങ്കിൽ സാലഡ് പച്ചക്കറി സാലഡ് മുളപ്പിച്ച പയറുകള് അങ്ങനെ കുറച്ച് ആരോഗ്യമായ എന്നാല് എളുപ്പത്തില് ദഹിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ അത്താഴത്തിന് ഞാന് പാചകം ചെയ്യാറുള്ളത് നമ്മൾ ഓരോ ദിവസവും മാറ്റി മാറ്റി എല്ലാവരുടെയും അഭിരുചിക്കനുസരിച്ച് നമ്മൾ മാറി മാറി എല്ലാ പോഷകകങ്ങളും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അത്താഴമാണ് ഞാൻ എന്നും ഒരുക്കാറുള്ളത് എന്റെ വീട്ടിൽ